ആ ഹലോ സ്ഥലത്തിൻ്റെ ബ്രോക്കറാണോ ആ എവിടാണ് ആൾ ആൾ എവിടൊള്ളതാണ് ആ പേര് കേശവനെന്നാണോ ആ ആ അപ്പോൾ ചേട്ടന് എവിടൊക്കെയാണ് സ്ഥലങ്ങൾ ഉള്ളത് നമുക്ക് താമസിക്കാൻ താമസം താമസമാണേലും നല്ലൊരു കെട്ടിടം മൂന്ന് മുറി രണ്ട് ബെഡ് റൂം ഇരിക്ക് പിന്നെ സിറ്റ് ഔട്ടും കാർ പോർച്ചൊക്കെ ഉള്ള സ്ഥലം വേണം ഒരു വീട് വേണം വഴി ഉണ്ടായിരിക്കണം ആലപ്പുഴ ഏരിയായിന്ന് കുറച്ച് ഉള്ളിലോട്ട് കയറി ഇപ്പറം വലിയ ടൗൺ വേണ്ട കുറച്ചുള്ളിലോട്ട് കയറി കടയ്ക്ക് സൗകര്യമായിട്ട് അപ്പോൾ വഴിയോ വഴിയോ എനിക്ക് വലിയ വണ്ടിയാണ് വലിയ വണ്ടി ഓടി കയറണം ഇന്നോവായാ അത് കയറത്തക്ക രീതീലുള്ള സ്ഥലം സൗകര്യം വലിയ റോഡായിരിക്കണം ചുറ്റുമതിലുണ്ടാവോ ചുറ്റ് മതിൽ ആ ചുറ്റുമതിൽ ഉണ്ടായിരിക്കണം എന്തെങ്കിലും ആവറേജ് എന്നാ സെൻറ്റിനെന്നാ കൊടുക്കേണ്ടി വരും രണ്ട് രണ്ടേ കാലിന് കിട്ടാൻ സാധ്യത ഉണ്ടോ

ആ അതിന് പക്ഷേ അതിനെ ഏത് വരെ ഇപ്പോൾ ലയബലിറ്റി ഏതെങ്കിലും വീടും സ്ഥലവും കൂടി എടുക്കാം പക്ഷേ ലയബിലിറ്റി ഉണ്ടാകോ ലയബലിറ്റിയേ ബാധ്യത ബാങ്കില് പണയം വെച്ചതോ അല്ലെങ്കിൽ അവിടെ വാങ്ങിച്ചായിരുന്നോ കൂടുതൽ കൂടുതലവകാശികൾ ഉണ്ടെങ്കിൽ പിന്നത് പ്രശ്നം ആകും ഒറ്റ ഉടമ ആയിരിക്കണം നോക്കേണ്ടത് അപ്പം ആ പേപ്പറ് പ്രശ്നം ആണെങ്കിൽ എന്ത് വില വേണ്ടി വരും ഒരു പത്ത് സെൻറ്റ് സ്ഥലവും അതിൽ വീട് കെട്ടി തീരാൻ ആ അതന്നെ മറ്റ് ബാധ്യത ഒന്നും ഇല്ല അവകാശികളാരുമില്ല നല്ല സ്ഥലമാണെങ്കിൽ മൂന്ന് രൂപയ്ക്ക് മുകളിലാണെങ്കിലും എടുക്കാം പത്ത് സെൻറ്റ് സ്ഥലവും ഒരു വലിയ വീടുമായിട്ട് വഴി ഉണ്ടായിരിക്കണം വെള്ളമുണ്ടായിരിക്കണം ഒന്നുകിൽ കിണർ അല്ലെങ്കിൽ

ആ ഒന്നുകിൽ പിന്നെ കിണർ ഉണ്ടായിരിക്കണം നല്ല കിണർ ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ മുൻസിപ്പൽ വാട്ടർ സപ്ലൈ ഉണ്ടായിരിക്കണം ആ ആ വണ്ടി കയറും എന്ന് പറഞ്ഞാൽ ഒത്ത വലിപ്പം ചെറിയ കാറല്ല ഓൾട്ടോ അല്ല ഇന്നോവ ഇന്നോവ തിരിഞ്ഞ് കയറണം ഇന്നോവ തിരിഞ്ഞ് ആ അഞ്ച് വർഷം പഴക്കമുള്ളതാണേൽ സാരമില്ല മെയിൻറ്റേൻസ് വല്ലതും ഉണ്ടോ ചെയ്യാനായിട്ട് ഇനി പണി ആവാത്ത ഉള്ളതാണോ ഓ പെയിൻറ്റിങ്ങ് എന്ന് ചെയ്യാൻ ചെയ്യുക വേണം ആ ബാധ്യത ഇല്ലാത്തതാണെങ്കിൽ എവിടെ വരണം ആലപ്പുഴ ആ ഞാൻ മലക്ക് ക്ഷേത്രത്തിൻ്റെ അടുത്ത് നിൽക്കാം മലക്ക് ക്ഷേത്രത്തിൻ്റെ അടുത്ത് നിൽക്കാം ശരി എന്നാൽ